എൻ്റെ ഫോണിലോട്ടനവധി ആപ്പുകളൊക്കെ ഉണ്ട് വാട്സപ്പ് ഫേയ്സ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഗൂഗിൾ പേ ഗെയിം കളിക്കാനുള്ള നിരവധി ആപ്പുകൾ അങ്ങനെ കുറേ ആപ്പുകളൊക്കെയുണ്ട് അപ്പം ഇതിനെല്ലാറ്റിനും പല പല ഉപയോഗങ്ങൾ പല പല രീതിയിലുള്ള ഉപയോഗങ്ങൾ ഉപയോഗങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം വാട്സപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മറ്റൊരാളെ വിളിച്ച് പറയാതെ നമ്മൾ മെസ്സേജിലൂടെയും മറ്റും അറിയിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫോട്ടോകളും മറ്റ് മറ്റ് നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നു അതിൽ നമ്മൾ നമ്മുടെ ഫോട്ടോകളും മറ്റും പോസ്റ്റൊക്കെ ചെയ്യുന്നു നമുക്കതിൽ നിന്ന് ഒട്ടനവധി സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കാൻ കഴിയും അതു പോലെ തന്നെയാണ് ഫേയ്സ്ബുക്കും നമുക്ക് ഫേയ്സ്ബുക്ക് വഴി നമുക്കൊട്ടനവധി സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കഴിയും നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ അതിൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണുവാനും ഒക്കെ മറ്റേ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് കഴിയുന്നതാണ് അതു പോലെ ഗൂഗിൾ പേ പോലെ ആപ്പുകൾ നമുക്ക് പൈസകൾ പൈസ അയക്കാനും സ്വീകരിക്കാനും ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പൈസകൾ പൈസ ഒക്കെ കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു അതു പോലെ തന്നെ അതു പോലെ തന്നെ നമുക്കോരോ കാര്യത്തിനും ഫണ്ടിങ്ങിന് അടയ്ക്കാനും ഒക്കെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു അതു പോലെ തന്നെ ഈ ഗേയ്മൊക്കെ കളിക്കുന്നതു തന്നെ നമ്മളിപ്പം ഒരു സങ്കടത്തിലിരിയ്ക്കുകയാണെങ്കിൽ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പം നമ്മൾ ആ ഒരു ട്രിക്സ് ഒരൂ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുറത്ത് കടക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഒട്ടനവധി ഗെയിമിങ്ങാപ്പുകളൊക്കെ ഓരോരുത്തരുടെയും ഫോണുകളൊക്കെ കാണും അതു പോലെ തന്നെ ഇപ്പം ഈ വാട്സപ്പ് വഴി നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓര് ഗ്രൂപ്പുകളൊക്കെ നിർമ്മിച്ച് ഓരോ ഗ്രൂപ്പുകളൊക്കെ നിർമ്മിച്ചിട്ട് ഉപയോഗി ഇങ്ങനെ നോട്ടുകളൊക്കെ ഓരോരുത്തർക്കയക്കുന്നതിനു വേണ്ടി അയക്കാതെ ഒരു ഗ്രൂപ്പിലേക്കങ്ങിട്ട് കൊടുത്താൽ മതി അതു പോലെ തന്നെ പല കാര്യങ്ങളുമൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യുക ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് ഗ്രൂപ്പുകളുണ്ടാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇപ്പം ഓരോരുത്തർക്ക് നമ്മൾ റീൽ അയച്ചു കൊടുക്കാതെ ഒരു ഗ്രൂപ്പുണ്ടാക്കി അതിലേക്കാ റീലുകൾ ഷെയർ ചെയ്യാനൊക്കെ ഇപ്പം ഇൻസ്റ്റഗ്രാം വഴിയും കഴിയും പിന്നേ നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം വാട്സപ്പിൽ മേസ്സേജയച്ചാണ് അറിയിക്കുന്നത് കോളുകളൊക്കെ ചെയ്യുന്നത് ഇപ്പം വളരെ ചുരുക്കമായി ട്ടേ ഉള്ളു ഇപ്പം ഓരോ സൗഹൃദങ്ങളും ഓരോ റിലേഷൻഷിപ്പുകളൊക്കെ നിലനിർത്താൻ നമുക്ക് വാട്സപ്പ് വാട്സപ്പിലൂടെ കഴിയുന്നുണ്ട് നമ്മൾ പല പല കാര്യങ്ങൾ വാട്സപ്പിലൂടെ ഇങ്ങനെ മെസ്സേജിലൂടെയും മറ്റും ഇങ്ങനെ അറിയിക്കുന്നു നമ്മൾ വാട്സപ്പിലൂടെയും ഫണ്ട് അയച്ച് കൊടുക്കാനൊക്കെപ്പറ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ് നടത്താനും ഒക്കെ നിരവധി ആപ്പുകൾ നമുക്ക് ലഭ്യമാണ് മീഷോ ഫ്ലിപ്ക്കാട്ട് മിത്ര അങ്ങനത്തേ അങ്ങനത്തെ ഓൺലൈൻ ഷോപ്പിങ് ആപ്പുകളും നമ്മുടെ ഫോൺ ഫോണിലുണ്ട് ഇതു വഴി നമുക്ക് വീട്ടിലിരുന്നു തന്നെ ഓഡർ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും പിന്നെ നമ്മൾക്ക് ഈ ബ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പർപ്പിൾ നയ്ക്കാ മുതലായ ആപ്പുകളുമുണ്ട് ഇതിലിപ്പം രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൽ പെട്ടെന്നു ഡെലിവറി ലഭിക്കുന്ന ആപ്പാണ് പർപ്പിൾ പോലെയുള്ളതൊക്കെ രണ്ടു ദിവസമൊക്കെ മതി പക്ഷേ ഫ്ലിപ്ക്കാട്ടിലൊക്കേ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ ഡെലിവറി ഒക്കെ ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ വേറേറെ ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിലുണ്ട് പിന്നേ ക്യാൻവാ പോലെയുള്ളതിൽ പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് ചെയ്യാനും പാട്ട് കേൾക്കാനും സിനിമ കാണാനും ഒക്കെ നമുക്ക് ഓരോരോ ആപ്പുകളിങ്ങനെ ഉപയോഗിയ്ക്കാവുന്നതാണ് നമ്മൾ പല പല തരത്തിലുള്ള പല പല ആപ്പുകൾ പല പല കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ പല ആവശ്യങ്ങൾക്കും പല തരത്തിലുള്ള ആപ്പുകളാണുപയോഗിക്കുന്നത് ഇപ്പം കുറേ യൂറ്റ്യൂബ് അതിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ ന്യൂസ് കേൾക്കാനും വീഡിയോകൾ കാണാനും നമുക്ക് ഇപ്പം പാചകം ചെയ്യാൻ പോലും എല്ലാവരും യൂറ്റ്യൂബിൽ ആശ്രയിച്ചാണ് ചെയ്യുന്നത് ഇപ്പം ഒരു കാര്യം നമുക്കറിയില്ലെങ്കിൽ അത് ഗൂഗിളിനോട് ചോദിച്ച് ചോദിക്കും ഗൂഗിൾ അതിൻ്റെ മറുപടിയായിട്ട് മറുപടി പറയും പിന്നേ പല കാര്യത്തിന് നമ്മൾ ഫോണിൽ പലതരത്തിലുള്ള ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്